ഞാൻ പോയിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ഹരിതാഭമായ നല്ല യൂണിക് ആയിട്ടുള്ള റോക്ക് ക്ലൈമ്പിങ്ങ് ലൊക്കേഷൻ ആയിരുന്നു മരുത്വ മല ഞാൻ ഒരുപാട് മ റോക്ക് ക്ലൈമ്പിങ്ങിനു പോയിട്ടുണ്ട് എന്നാലും എന്റെ മനസ്സിൽ ഇപ്പോഴും തട്ടി നിൽക്കുന്ന ഞാൻ ആദ്യമായിട്ട് കയറിയത് കയറിയതുമായ ഒരു മലയാണ് ഈ മരുത്വ മല എന്ന് പറയുന്നത് അത് കന്യാകുമാരിയിൽ തന്നെയാണ് ഉള്ളത് ഏകദേശം ഒരു മൂന്നു നാല് മണിക്കൂർ ട്രാവല് ചെയ്താണ് മരുത്വ മലയിൽ എത്തിയത് മരുത്വ മല എന്ന് പറയുന്നത് നല്ല പ്രകൃതിരമണീയമായിട്ടുള്ള സ്ഥലമാണ് മാത്രമല്ല ഇടയ്ക്ക് കാടിന്റെ ഇടയിലൂടെ ഒക്കെ നമുക്ക് മല കയറേണ്ടി വന്നിട്ടുണ്ട് അവിടെ ഒരുപാട് കുരങ്ങന്മാരെല്ലാം ഉണ്ട് അതുകൊണ്ടു തന്നെ നമ്മൾ സൂക്ഷിച്ചു വേണം ആ റോ ക്ലൈമ്പിങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റോ ക്ലൈമ്പിങ്ങിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രിക്വേഷനോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല അവിടെ നമ്മൾ നമ്മുടെ സ്വന്തം റിസ്കിലാണ് കയറി പോയിട്ട് വന്നത് അതിനു വേണ്ടിയിട്ട് ഒരു കയറോ അങ്ങനെ ഒന്നുമില്ല നമ്മൾ കൈ കൊണ്ടാണ് പിടിച്ചു കയറി പോയത് ഏകദേശം ഒരു മൂന്നു നാല് മണിക്കൂർ അടുപ്പിച്ചെടുത്തു നമുക്ക് ആ മലയുടെ മണ്ടയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് വേണ്ടുന്ന സാധനങ്ങളും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ എല്ലാം ഞാൻ എന്റെ ബാഗിൽ കരുതിയിരുന്നു ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂർ എടുത്താണ് നമ്മൾ കയറി തുടങ്ങിയത് ആദ്യമൊക്കെ കയറിയപ്പോൾ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല നല്ല വഴികളായിരുന്നു സ്റ്റെപ്പുകളായിരുന്നു പിന്നീട് പിന്നീട് അങ്ങോട്ട് പോയപ്പോഴേക്കും വഴികളൊക്കെ നേരിയ വഴികളായി ദുർഘടം നിറഞ്ഞ വഴികളായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾക്ക് മാത്രം പോകുന്ന വഴികളായി കുത്തനെയുള്ള പാറകൾ ഉണ്ടായിരുന്നു അതെല്ലാം പിടിച്ചു കയറി അതെല്ലാം കയറി ഒരു അര മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും കൈയും കാലും എല്ലാം വേദനിച്ചു തുടങ്ങി പക്ഷേ അവിടെ കാണാൻ നല്ല രസമായിരുന്നു ഒരുപാട് മരങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു ആ മരുത്വ മല എന്ന് പറയുന്നത് നമുക്ക് ഒരു അരുവി ഒഴുകി പോകുന്നത് നമുക്ക് കാണാമായിരുന്നു അവിടെ ഒരുപാട് മരുന്ന് ചെടികൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് അതിനെ പറ്റി കൂടുതൽ അറിയാത്തതു കൊണ്ടും എനിക്ക് തിരിച്ചറിയാൻ കഴിയാത്തതു കൊണ്ടും ആയിരിക്കും എനിക്ക് അവിടെ ഒന്നും കാണാൻ പറ്റിയില്ല എന്നുള്ളത് ഞാൻ രണ്ടു ബോട്ടിൽ വെള്ളം കൊണ്ടാണ് ആ മല കയറിയത് പക്ഷേ ഒരു ഒരു മണിക്കൂർ ആയപ്പോഴത്തേക്കും ഒരു ബോട്ടിലിന്റെ ഫുള്ള് കഴിഞ്ഞിരുന്നു ഇനി ആകെ എന്റെ കയ്യിൽ വേറെ ഒരു ബോട്ടില് മാത്രമേ ഉള്ളൂ ഇനിയും കിടക്കുന്നു രണ്ടു മണിക്കൂർ കയറാൻ വേണ്ടിയിട്ട് അതു കൊണ്ട് ദാഹിച്ചാലും അങ്ങേ അറ്റം ദാഹം വരുമ്പോഴേ ഞാൻ പിന്നെ വെള്ളം എടുത്തു കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ ഒരുപാട് പാറകളുണ്ടായിരുന്നു പാറകള് ചെടി ചെടികൾ നിറഞ്ഞ പാറകളായിരുന്നു അത് അതുകൊണ്ടു തന്നെ നമുക്കൊരു തണുപ്പ് ഫീൽ ചെയ്യുമായിരുന്നു അവിടെ അങ്ങനെ അതെല്ലാം രണ്ടു മൂന്ന് പാറകളെല്ലാം ചാടിയും തൂങ്ങിയും ഒക്കെ കയറി നമ്മൾ പോയി ഒരുപാട് ക്ഷീണിച്ചു ഞാനും എന്റെ കൂട്ടുകാരും കൂടെയാണ് അവിടെ എത്തിയത് ഇടയ്ക്ക് രണ്ട് മൂന്ന് ഇടത്ത് നമ്മൾ നിർത്തി റസ്റ്റ് ചെയ്തു അവിടെ നിന്ന് നമ്മൾ കൊണ്ടു പോയ ഭക്ഷണങ്ങൾ കഴിച്ചു കുറച്ചു തന്നെ കുറച്ചു കയറുമ്പോൾ തന്നെ നമ്മളുടെ കാല് കഴക്കും പിന്നെ ഇരുന്ന് സാവധാനം ഇരുന്ന് നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് പോയാൽ അത്രയും നല്ലത് ആ വേദന കുറഞ്ഞിട്ട് പോയാൽ അത്രയും നല്ലത് കാരണം പിന്നെ അങ്ങോട്ട് നല്ല ദുർഘടമായ വഴികളാണ് അങ്ങനെ ഒരു മൂന്നു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ മുകളിലേക്ക് എത്തി അവിടെ ഞാൻ കണ്ട കാഴ്ച അതിമനോഹരം ആയിരുന്നു ഒരുപാട് മരങ്ങൾ ഒരുപാട് ചെടികൾ അതിന്റെ ഇടയിൽ ഒരു കുഞ്ഞു അമ്പലം അവിടെ നിന്ന് നോക്കിയാൽ ആ മലയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിന്റെ ഏകദേശം ഒരു ത്രീ സിക്സ്റ്റീ ഡിഗ്രി വ്യൂ നമുക്ക് കാണാമായിരുന്നു അത്ര മനോഹരമായിരുന്നു ആ കാഴ്ച നമുക്ക് അത്രയും കഷ്ടപ്പെട്ട് മുകളിലെത്തിയ ഒരു സംതൃപ്തിയും എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങള് നമ്മള് അവിടെ കുറച്ചു നേരം ഇരുന്നു അവിടുന്ന് വെള്ളം കുടിച്ചു ഇരുന്ന് ഫോട്ടോസെല്ലാം എടുത്ത് അവിടെ ഒരു കുഞ്ഞു ഗുഹയുണ്ടായിരുന്നു അവിടെയാണ് പണ്ട് നമ്മുടെ ശ്രീനാരായണ ഗുരു തപസ്സിരുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആ ഒരു ഗുഹയിലേക്ക് ഇറങ്ങിപ്പോയി ആ ഗുഹ കുറച്ചു ദുർഘടം നിറഞ്ഞതായിരുന്നു കാരണം അത് താഴോട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ചാടി ഇറങ്ങുന്ന ഇറങ്ങേണ്ട ഒരു ഗുഹ ആയിരുന്നു തിരിച്ചു കയറാനും ആ ഒരു പാറയിൽ പിടിച്ചു മുകളിലേക്ക് കയറണം അത് ഒരാളുടെ സഹായമില്ലാതെ നമുക്ക് പറ്റില്ല അങ്ങനെ അവിടെ നമ്മൾ കുറച്ചു നേരം ഇരുന്നു തിരിച്ച് നമ്മൾ കയറിനെ കയറിയതിനെ കാട്ടിയും വേഗത്തിൽ ഇറങ്ങി കാരണം നമുക്ക് അറിയാം എവിടെ ഒക്കെ എന്തൊക്കെയുണ്ട് എങ്ങനെ ഇറങ്ങണമെന്നുള്ളത് മാത്രവുമല്ല കയറുന്ന അത്രയും പാടില്ല ഇറങ്ങാൻ അങ്ങനെ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് നമ്മൾ തിരിച്ചിറങ്ങുകയും ചെയ്തു വളരെ നല്ല ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ് മരുത്വ മല